ഗ്രാമ പ്രേദേശത്തുള്ള കർഷകർ ഒരുപാട് വെല്ലുവിളികൾ അനുഭവപ്പെടുന്നുണ്ട് അതുകാരണം അവർക്കു കാർഷിക മേഖലയിലേയ്ക്ക് ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കാണെങ്കിലും തിരിയാൻ ഒരു ഒരുപാട് പിന്നെ മാനസികമായിട്ടും അല്ലാണ്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട് കാരണം ഒന്നാമത്തെത് ധനസഹായം കുറവ് പിന്നെ നമ്മുടെ കാലാവസ്ഥ വരെ കാലാവസ്ഥ മൃഗശല്യം അങ്ങനെ പിന്നെ അതിനുള്ള നമ്മുടെ ഉൾപ്രദേശങ്ങളിലാണെങ്കിൽ വാഹന സൗകര്യക്കുറവ് പിന്നെ ചെറുകിട കർഷകർക്ക് പരിശീലനമൊക്കെ കുറവായിരിക്കും പിന്നെ ചെറുകിട കർഷകറിനെക്കാളും കുടുതലും ആൾക്കാർ പുറമെയുള്ള സ്ഥലത്തുപോയി സാധനങ്ങൾ വാങ്ങുന്നു അവരെയൊക്കെ അവഗണിച്ചു അവഗണിക്കുന്നു പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് ഒരുപാട് കാർഷികപരമായും പിന്നെ ധനസഹായപരമായും ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നതാണ് ഗ്രാമപ്രേദേശത്തെ കർഷകർ അവർക്ക് വേണ്ടത്ര ഫെസിലിറ്റികൾ ഇല്ലാത്തതുകൊണ്ടാണ് അവർക്ക് കാർഷിക മേഖലയിലേയ്ക്ക് തിരിയാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട്